ആ ആ ഡെലിവറി ബോയ് അല്ലേ ആ ഞാൻ എൻ്റെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ഉണ്ടായിരുന്നേ ആ വിൽക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ല സർ ഞാനീ ഞാൻ വേടിച്ചായിരുന്നു പക്ഷെ എനിക്ക് അതൊരു ക്ലോസ് ആയിരുന്നു അപ്പം അതെനിക്ക് ഫിറ്റല്ല

ആ അത് അത് റിട്ടേൺ ചെയ്യാനുള്ള പോളിസി ഉണ്ടല്ലോ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു പിന്നെ ഇതുണ്ട് നമുക്ക് എന്നാൽ ടു വീക്സിനുള്ളിൽ റിട്ടേൺ റിട്ടേൺ ചെയാൻ പറ്റുമെന്നാണ് അതിനകത്ത് പോളിസിയിൽ എഴുതിയേക്കുന്നത് ആ എന്റെ പ്രൊഡക്റ്റ് നമ്പർ എന്ന് പറയുന്നത് ത്രിപ്പിൾ സിക്സ് ഫൈവ് സിക്സ്

വൺ സിക്സ് സീറോ സിക്സ് ആ ആ ഒരു എച്ച് ആൻഡ് എം ഒരു എച്ച് ആൻഡ് എമ്മിൻ്റെ ഒരു പിന്നെ ബ്ലൂ കളറ് ടീഷേർട്ടല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇതിന് എനിക്ക് റീഫണ്ടിൻ്റെ കാര്യം ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ ഞാന് റീഫണ്ട് ആണ് കൊടുത്തേക്കുന്നത് പക്ഷെ അതിനകത്ത് പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തോ ഫൈവ് പെർസെൻറ്റേജ് എന്തോ അവർ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ ഓക്കെ ഓക്കെ ആണോ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ അതൊരു പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ട് കുട്ടിക്കാനംൻ്റെ മരിയൻ കോളേജില്ലെ മരിയൻ കോളേജ് കുട്ടിക്കാനം അടുത്ത് പൈൻ ഫോറസ്റ്റ് ഉണ്ട് അതിൻ്റെ താഴെ വന്നാൽ മതി ആ ആണോ

ഓ ഓക്കെ അത് കുഴപ്പം ഇല്ല അപ്പം നിങ്ങൾ മറ്റേ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു നമ്പറോ അങ്ങനെത്തെ വല്ലതും പ്രൊവൈഡ് ചെയ്യുമോ അതോ അതല്ല ലൊക്കേ മീൻസ് കറണ്ട് ലൊക്കേഷൻ അറിയാനോ സ്റ്റാറ്റസോ ആ

ആ ആ കുഴപ്പം ഇല്ലല്ലേ ആ വേറെ ആടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഞാൻ റിട്ടേൺ ചെയ്തിട്ട് മറ്റേ പ്രൈസ് വേടിക്കാനായിരുന്നു ഇരുന്നത് പക്ഷെ മീൻസ് എച്ച് ആൻഡ് എം ആണെന്ന് പറഞ്ഞിട്ട് അവിടെയാണെങ്കിൽ എം ആൻഡ് എച്ച് എന്നൊക്കെയാണ് പറഞ്ഞ ബ്രാൻഡ് വന്നേക്കുന്നത് അപ്പോൾ ഓ ഒന്ന് റിപോർട്ട് ചെയ്യ് ആ ഏ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ എന്നാൽ താങ്ക് യൂ